എസ് പറയൂ അതെ വയനാട് ആണ്

പടിഞ്ഞാറെത്തറ ഡാം ഉണ്ട് അതേപോലെ തിരുനെല്ലി ഉണ്ട് പിന്നെ അതേപോലെ ബത്തേരി വഴി ഊട്ടിക്ക് പോകാം അ ഊട്ടി ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററെ ഉള്ളൂ വേറെ തിരുനെല്ലി ടെമ്പിളിൽത്തന്നെ കുറെ സ്ഥലങ്ങള് കാണാൻ ഉണ്ട് ഓഫ് റോഡിങ് ഉണ്ട് പിന്നെ അതേപോലെത്തന്നെ ഓഫ് റോഡിങ് ഉണ്ട് ഡാം ഉണ്ട് തിരുനെല്ലിയിൽ തന്നെ നിങ്ങൾ എത്ര പേരുണ്ടാവും

അതെ ഫാമിലി ട്രിപ്പ് ആണല്ലെ ഓക്കെ ഓക്കെ അപ്പോൾ ഓഫ് റോഡിങ് ഫുഡ് ഒക്കെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യും നിങ്ങള് പറയുന്നത് പോലെ റൂംസ് എ സി ഉണ്ട് ഡബിൾ കോട്ട് ഉണ്ട് കുട്ടികളുള്ള കാരണം ഒരു റൂമിൽ തന്നെ രണ്ട് റൂം വരുന്നത് വേണോ ഒരു ബിൽഡിങ്ങിൽ തന്നെ അ അ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എങ്ങനെയാണ് ഓഫ് റോഡിങ് കയറുന്നുണ്ടോ അതല്ല ചോദിച്ചതാണ് എന്താന്ന് വെച്ചാൽ തിരുനെല്ലി നല്ല ഓഫ് റോഡിങ് ഉണ്ട് നല്ല പ്ലേസ് ആണ് അത്ര ഡെയ്ഞ്ചർ ഒന്നും ഇല്ലാത്ത അല്ല വണ്ടി എന്തായാലും ഒരു സെവൻ സീറ്റ് ബൊലേറോ ബുക്ക് ചെയ്യാമല്ലെ ഓക്കെ പിന്നെ ഫുഡ് എങ്ങനെയാണ് നിങ്ങള് പുറത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുമോ അതോ നമ്മളുടെ വണ്ടി ഉണ്ട് ഫുഡിനായിട്ടുള്ളത് ഓക്കെ ഓക്കെ ഓക്കെ അതെ വെജും ഉണ്ട് റൂമിന് അങ്ങനെ ത്രിബിള് രണ്ട് ഒരു റൂമിൽ തന്നെ രണ്ട് ഇത് വരുന്നതിന് കട്ടിലൊക്കെ വരുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എ സി അല്ലാത്തതിന് ഓക്കെ ഓക്കെ ശരി